പൂക്കളും പൂന്തോട്ടവും പ്രകൃതിയുടെ ഭംഗിയുമൊക്കെ ആസ്വദിക്കാത്ത ആരാണ് നമ്മളിൽ ഉള്ളത് എല്ലാവരും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും പ്രതേകിച്ചും നമ്മുടെ ഉദ്യാനത്തിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളെ കാണുമ്പോൾ എത്ര സന്തോഷമാണ് നമുക്ക് ഉണ്ടാവുക പൂന്തോട്ട പരിചരണവും അതുപോലെ തന്നെ അടുക്കള തോട്ടവുമൊക്കെ പരിചരിക്കുക എന്നത് എനിക്ക് വളരെ ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എൻ്റെ പൂന്തോട്ട നിർമ്മാണത്തിൽ എന്നെ വളരെയേറെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിനും ഈ പൂന്തോട്ട പരിചരണത്തിൽ വളരെയേറെ താല്പര്യമുണ്ട് മാത്രമല്ല എൻ്റെ മകനും ഇതിന് ഈ പൂന്തോട്ട പരിപാലനത്തിലും പൂക്കളുടെ പരിചരണത്തിലും ഒക്കെ വളരെ തലപ്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഏതൊരു മനുഷ്യനും എത്രമാത്രം മാനസിക വിഷമമുള്ള സമയത്തും ഭംഗിയായി പൂത്തു നിൽക്കുന്ന ചെടികളെ കാണുമ്പോൾ പൂക്കളെ കാണുമ്പോൾ അതുപോലെ തന്നെ മനോഹരമായ ഒരു പൂവിൻ പൂ പൂങ്കുല കാണുമ്പോൾ ഒക്കെ ഒരുപാട് സന്തോഷമുണ്ടാവും മനസ്സിൽ നമ്മളുടെ മാനസിക സമ്മർദ്ദങ്ങളെയൊക്കെ അകറ്റി നമ്മൾക്ക് മനസിന് സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് പൂന്തോട്ട പരിചരണം എന്നത് അതിലൂടെ ഒരു മനുഷ്യന് ഒരു വ്യക്തിക്ക് ഒരുപാട് മാനസിക സന്തോഷം ലഭിക്കുകയും ചെയ്യും മാത്രമല്ല ഈ ചെടികൾക്കൊക്കെ ജീവനുള്ള ഒരു സംഭവം കൂടിയാണ് ചെടികളൊക്കെ ജീവൻ ജീവനുള്ള ചെടികളെ കാണുമ്പോൾ അവയൊക്കെ നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നാറുണ്ട് പലപ്പോഴും എൻ്റെ പൂന്തോട്ടത്തിലൂടെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ വെറുതെ നടക്കുമ്പോൾ തലയാട്ടി ചിരിക്കുന്ന പൂക്കളെ കാണുമ്പോൾ ചെടികളെ കാണുമ്പോൾ പൂത്തു നിൽക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് പൂക്കളെ കാണുമ്പോൾ ഒക്കെ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം വരാറുണ്ട് പ്രഭാതത്തിൽ ഉണർന്ന് വെറുതെ നമ്മുടെ പൂന്തോട്ടത്തിലൂടെ ഒന്ന് നടക്കുകയാണെങ്കിൽ നമുക്ക് ആ ദിവസത്തേക്ക് ആവിശ്യമായ ഊർജം നമ്മളിൽ അറിയാതെ വന്നു ചേരുകയാണ് എൻ്റെ പൂന്തോട്ടത് പരിചരണത്തിൽ എന്നെ വളരെയേറെ സഹായിക്കുന്ന എൻ്റെ ഭർത്താവ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്നത് പൂന്തോട്ടത്തിൽ കൂടി വളരെ സാവധാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്കളെ തലോടിയും പൂക്കളോട് സംസാരിച്ചുമൊക്കെ നടക്കുക എന്നുള്ളതാണ് ആദ്യമൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു അദ്ദേഹം എന്താണ് ചെടികളോട് സംസാരിക്കുന്നത് എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ചെടികളോട് മിണ്ടുന്നത് സംസാരിക്കുന്നത് അപ്പോൾ നമു അതുപോലെ ഒരു ദിവസം ഞാനും രാവിലെ ജോലികളുടെയൊക്കെ തിരക്കുകളിൽ നിന്ന് ഒഴിവായി വെറുതെ എൻ്റെ പൂന്തോട്ടത്തിൽ കൂടെ നടന്നും നടക്കുമ്പോൾ എനിക്കും അതേ അനുഭവമാണ് ഉണ്ടായത് അദ്ദേഹം ആ ആ അനുഭവിക്കുന്ന മാനസിക സന്തോഷം എനിക്കും കിട്ടി കാരണം പൂത്തു നിൽക്കുന്ന ചെടികൾ പുഞ്ചിരിച്ച് നിൽക്കുന്ന പൂക്കൾ എന്ത് ഭംഗിയാണ് കാണാൻ മാത്രമല്ല ചെടികൾ നടുക മാത്രമല്ല പൂന്തോട്ടത്തിൽ ഒരു പുതിയ ചെടി കൊണ്ട് വയ്ക്കുന്ന നടുമ്പോൾ അതിനെ പരിപാലിക്കുമ്പോൾ നമ്മൾ ഒരു ജീവനാണ് പരിപാലിക്കുന്നത് എന്ന ചിന്ത നമ്മളിൽ ഉണ്ടായെങ്കിൽ ആ ചെടിയെ നമ്മൾ സ്വന്തം വീട്ടിലെ അംഗത്തെപോലെ കാണുകയും പരിപാലിക്കുകയും ചെയ്യും എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവും മകനുമാണ് ഞങ്ങളുടെ വീട്ടിലെ പൂന്തോട്ട പരിപാലനത്തിൽ തല്പരരായിട്ടുള്ളത് എൻ്റെ ഭർത്താവായാലും മകനായാലും ആ ചെടികൾക്ക് ആവശ്യമായ വെള്ളവും വളവും നൽകി അവയെ പരിപാലിക്കുന്നതിന് വളരെയേറെ തല്പരരാണ് എൻ്റെ മകനും ഈ പൂന്തോട്ട പരിചരണത്തിൽ താല്പര്യം വരാൻ കാരണം ഞങ്ങൾ ദിവസവും ചെയ്യുന്ന പൂന്തോട്ട പരിചരണം അവൻ കാണുന്നത് കൊണ്ടാണ് എത്ര ഭംഗിയാണ് നമ്മൾ പരിചരിച്ച ഒരു പൂവിൽ നമ്മൾ ഒരു ചെടിയിൽ ഒരു പൂ വിരിയുന്നത് നമ്മൾ നട്ട ഒരു ചെടിയിൽ ഒരു പൂ വിരിയുമ്പോൾ നമുക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാകുന്നോ അതൊക്കെ വളരെ വളരെ വ വ വാക്കുകൾക്ക് അതീതമാണത് മനസ്സിലെ ഒരുപാട് വിഷമങ്ങളും സ ദുഃഖങ്ങളുമൊക്കെയായി ഒരു വ്യക്തി വെറുതെ മുറിയിൽ ഇരിക്കുമ്പോൾ അയ്യാൾ പുറത്തേക്ക് എറങ്ങി പൂന്തോട്ടത്തിലൂടെ ഒന്ന് നടക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ഒരുപാട് മാനസിക സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആയതിനാൽ പൂന്തോട്ട പരിചരണം എന്നുള്ളത് എന്നെ സംബന്ധിച്ചെടത്തോളം വളരെയേറെ താല്പര്യമുള്ള ഒരു വിഷയമാണ് ചെറിയ ചെറിയ ചെടികളിലും വലിയ വലിയ ചെടികളിലും പൂക്കൾ വിരിയുമ്പോൾ ഞാൻ ഒരേ മനസോടെ അവയെ കാണുകയും പരിപാലിക്കുകയും ചെയ്യാറുണ്ട് ചെടികൾക്ക് അത്യാ ആവശ്യമായ സമയങ്ങളിൽ വളവും വെള്ളവും നൽകി അവയെ പരിപാലിക്കുന്നതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കാട്ടേണ്ടത് അതിൽ എൻ്റെ മകനും ഭർത്താവും എന്നെ ഒരുപോലെ സഹായിക്കാറുണ്ട് എല്ലാ ദിവസവും രാവിലെ വെള്ളം കോ കൊടുക്കുന്നത് ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നതും വൈകുന്നേരങ്ങളിൽ ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നതും ഇരുവരും ഒരുമിച്ചാണ് പൂന്തോട്ട പരിപാലനം നമ്മളെ വ മറ്റൊരു വ്യക്തിയാക്കി മാറ്റും അത് നല്ലൊരു വിനോദ ഉപാധിയായി മാറ്റാൻ കഴിയും ഇന്നത്തെ കാലത്ത് എല്ലാവരും വളരെയേറെ സമ്മർദ്ദങ്ങളിലൂടെ കടന്ന് പോകുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് മറ്റ് ഹോബികൾ അത് മറ്റ് വിനോദങ്ങളൊന്നും ഇല്ലാതെ ഒന്നുകിൽ ടി വി അല്ലെങ്കിൽ മൊബൈൽ ഇതിലൊക്കെയായി നമ്മളുടെ ലോകം ഒതുങ്ങി പോവുകയാണ് പക്ഷേ ഇതേപോലെയുള്ള പൂന്തോട്ട പരിപാലത്തിലൂടെയും അതേപോലെയുള്ള പ്രകൃതി സ്നേഹത്തിലൂടെയും നമ്മൾ നമ്മുടെ ചിന്താഗതികൾ മാറ്റി മറിക്കാൻ നമുക്ക് കഴിയും ഒരുപാട് വിഷമങ്ങളുള്ള സമയത്ത് നമ്മൾ ഓ നമ്മുടെ ഉദ്യാനത്തിലൂടെ ഒന്ന് വെറുതെ നടക്കുക ഒന്നും ചെയ്യാനില്ല പൂക്കളുടെ ഗന്ധമേറ്റ് അവയുടെ തലോടലേറ്റ് അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ അലിഞ്ഞ് പോകുന്നതായി തോന്നാം എൻ്റെ ഭർത്താവിന് മകനും ഭർത്താവിനും മകനും നല്ലൊരു പൂന്തോട്ട പരിചരണം സിദ്ധി കിട്ടാൻ കാരണം അവർക്ക് എല്ലാം പ്രചോദനമായി ഞാൻ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ ഉദ്യാനത്തിൽ ഇനിയും പല പല പുതിയ പുതിയ പൂ ചെടികൾ കൊണ്ട് വെക്കാൻ ഞാൻ ശ്രമിക്കും ഇനിയും ആ ഒരുപാട് വ്യത്യസ്തങ്ങളായ പൂക്കളും ചെടികളും വളർത്താൻ ഞാൻ വളരെ ഏറെ താല്പര്യപ്പെട്ട് പുതിയ പുതിയ ചെടികൾ എവിടെ കണ്ടാലും ഞാൻ കൊണ്ട് വരികയും ചെയ്യാറുണ്ട് നമ്മളിൽ ചെടികൾ മാത്രമല്ല അതിനോടൊപ്പം തന്നെ പല വൃക്ഷ തൈകളും പച്ചപിടിപ്പിക്കുക അടുക്കള തോട്ടം വെച്ച് പിടിപ്പിക്കുക ഇതൊക്കെ നമുക്ക് അതിനോട് അനുബന്ധിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്

മറ്റൊന്ന് പല വ്യത്യസ്തങ്ങളായ പൂന്തോ ചെടികൾ പൂന്തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ വൈവിധ്യങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയും ഒരുപാട് വ്യത്യസ്തങ്ങളായ പല തരത്തിലുള്ള ചെടികൾ നേഴ്സറികളിൽ ലഭ്യമാണ് അല്ലെങ്കിൽ ഞാൻ സാധാരണയായി എൻ്റെ കുടുംബ കൂട്ടുകാരുടെ വീട്ടിലായാലും മറ്റ് ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ കാണുന്ന ചെടികളൊക്കെ തന്നെയും കൊണ്ടു വന്ന് എൻ്റെ ഉദ്യാനത്തിൽ വയ്ക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ സ്ഥല പരിമിതിമൂലം പോട്ടിങ് അത് ചെ ചെടിച്ചട്ടികളിലും മറ്റും വയ്ക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഉദ്യാന പരിപാലനം പൂർണമായും രസകരമാക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് സ്ഥലമില്ല സ്ഥല പരിമിതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞ് മാറി നിൽക്കാതെ നല്ല നല്ല ആ ചെ ആകർഷങ്ങളായ ആ ചട്ടികളിലും മറ്റും നമുക്ക് ചെടികൾ നട്ട് ഉദ്യാനം മനോഹരമാക്കാൻ സാധിക്കും പൊതുവേ ചെടി നമ്മൾ നട്ട ഒരു ചെടിയിൽ പുതിയൊരു പൂ വിരിയുമ്പോൾ അത് രാവിലെ നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം വളരെയേറെ വലുതായിരിക്കും അപ്പോൾ എൻ്റെ പൂന്തോട്ട പരിപാലനത്തിൽ എന്നെ ഏറെ സഹായിക്കുന്ന എൻ്റെ ഭർത്താവിനും മകനും ഒപ്പം ഇനിയും പുതിയ പുതിയ ചെടികൾ കൊണ്ടു വെച്ച് അവയെല്ലാം വളരെ മനോഹരമായി പല പരിപാലിച്ച് അവയെ സന്തോഷപൂർവ്വം നോക്കി ആസ്വദിക്കാൻ ഞങ്ങൾക്ക് ഇനിയും കഴിയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിന് വേണ്ടി ഞാന് ഇനിയും എൻ്റെ പൂന്തോട്ടം വിപുലീകരിക്കാനാണ് ശ്രമിക്കുന്നത്